കണ്ണൂർ ജില്ലയിൽ ആരോഗ്യപരിപാലന സൗകര്യങ്ങൾ വളരെ കൂടുതലാണ് എടുത്ത് പറയാൻ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗങ്ങൾ ഡോക്ടർമാർ

ആരോഗ്യ കേന്ദ്രങ്ങൾ ഫാർമസികൾ ആശുപത്രികൾ ഗർഭിണികൾക്കും കുട്ടികൾക്കുമായിട്ട് അമ്മയും കുഞ്ഞും പദ്ധതി അതുപോലെ ഒരുപാട് നല്ല നല്ല ആരോഗ്യകേന്ദ്രങ്ങൾ കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് ഓരോ പ്രദേശത്തും ഓരോ ആരോഗ്യ സെന്ററുകൾ അത് ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികളെയും കൊണ്ട് ഒരുപാട് ദൂരത്തേക്കോ തിക്കി തിരഞ്ഞ ആശുപത്രിയിലേക്കോ പോകേണ്ട ആവശ്യം വരുന്നില്ല കുട്ടികൾക്ക് പതിനെട്ടു വയസ്സ് വരെ സർക്കാർ നല്ല സേവനങ്ങൾ നൽകുന്നുണ്ട് സൗജന്യമായ ചികിത്സയും ലാബുകളും ടെസ്റ്റുകളും മരുന്നുകളും ഒക്കെ സൗജന്യങ്ങളായിട്ട് ഗവൺമെൻറ് തരുന്നുണ്ട്